പരമ്പരാഗതമായ കായികയിനങ്ങളെ സംരക്ഷിക്കാൻ എല്ലാ ആളുകളിലും ഇപ്പോൾ ഒരു ക്ലബുകളുണ്ട് എൻ്റെ നാട്ടിലുണ്ട് ക്ലബ് ഞങ്ങളുടെ നാട്ടിലെ പരമ്പരാഗത കളികളെന്നു പറയണത് കൊത്തക്കല്ല് അതേപോലെ കക്കയാടുക ഫുട്ബോളൊക്കെയാണ് ഫുട്ബോൾ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി നാട്ടിൽ ചെറിയ ചെറിയ കളികളൊക്കെ ഉണ്ടാകാറുണ്ട് അത് അതിന് പെട്ടെന്നാണീ ഈ കുട്ടികളും കാക്കാരി കാക്കണേ ടൂർണമെൻറ്റ് അതേപോലെ മാച്ച് കണ്ടയിൻ്റെ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ചാ കളിക്കലുണ്ട് അത് ഫുട്ബോളിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെല്ലാവരും ഇതേപോലെ കളിച്ചു തുടരുന്നത് ഇപ്പോൾ എക്സർസൈസാണ് എക്സർസൈസായിട്ട് ചെയ്യണെ ഓരോ കളികളൊക്കെയാണ് ഈ വള്ളിച്ചാട്ടമെന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയണത് അതാണ് ആരോഗ്യത്തിനും നല്ലതാണ് അതേപോലെ കളിക്കാനും രസമാണ് ഈ കക്കുകളിയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കളിയാണ് ഈ കളിയുടെ കാഴ്ച്ചെ അതിൽക്കൂടൊക്കെ ചാടിയേതാണ്ടൊക്കെ കളിച്ചൊരു കാളിയാണിത് ഇനീ കൊത്തക്കല്ലി എന്നൊക്കെ പറയും ഈ കല്ലെടുത്തു മുറുക്കിയിട്ട് പിടിച്ചിന്നൊരു കളിയാണിത് നല്ല രസമാണ് കളിക്കാൻ ഇപ്പോഴും കുട്ടികളൊക്കെ സാധാരണ കളിച്ചു വരുന്ന കളിയാണിത് പിന്നെ ക്രിക്കറ്റും ഇതേപോലെ പഴയ ഒരു പരമ്പരാഗത കളിയാണിപ്പോൾ നമ്മുടെ നാട്ടിലും കളിച്ചു കൊണ്ടിരിക്കുന്നൊരു കളിയും കൂടെയാണിത്